ഞങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മംഗളകരമായ സംഭവം നടക്കുന്നതിനുമുമ്പും ഞങ്ങളാ ദിവസം രാവിലെ തന്നെ വിശുദ്ധ ബലിക്ക് പള്ളിയിലേക്ക് പോകാറുണ്ട് പള്ളിയില് പോയി വിശുദ്ധ ബലിയ്ക്കു കൂടുകയും അതേ സംബന്ധിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചിട്ട് ആണ് ഞങ്ങളത് ഏതു സംഭവവും തുടങ്ങുന്നത് പിന്നീട് പ്രാര്ത്ഥന വിശുദ്ധബലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാലുടനെ ഞങ്ങൾ ഒത്തിരി പ്രാധാന്യം ഇല്ലാത്തതാണെങ്കില് സ്വയമായിട്ട് പ്രാര്ത്ഥിക്കും അല്ല വളരെയധികം പ്രാധാന്യം അര്ഹിക്കുന്ന ഏതെങ്കിലും സംഭവമാണെങ്കില് തീര്ച്ചയായും ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനെയും സമര്പ്പിത സിസ്റ്റേസുണ്ട് സിസ്റ്റേസിനെയും ഒക്കെ വിളിച്ച് ഭവനത്തിൽ ആ പ്രാര്ത്ഥന ആ സംഭവം നടക്കുന്നതിന് മുമ്പിട്ട് തീര്ച്ചയായും പ്രാര്ത്ഥന നടത്താറുണ്ട് പ്രാര്ത്ഥന ചൊല്ലാറുണ്ട് പ്രാര്ത്ഥനയിൽ വചനം വായിക്കും സ്വയമേത് പ്രേരിത പ്രാര്ത്ഥനകൾ നടത്താറുണ്ട് ഇങ്ങനെയൊക്കെ പ്രാര്ത്ഥനകളിലൂടെയാണ് ഏതൊരു സംഭവവും മംഗളകരമായ സംഭവവും ഞങ്ങൾ ചെയ്യാറുള്ളത് പിന്നീട് ഉദാഹരണത്തിന് ഭവനം പണിയാണെങ്കില് ഭവനം പണിയുമായി ബന്ധപ്പെട്ട സംഭവമാണെന്നുണ്ടെങ്കിൽ ഭവനം പണിയുന്നതിനു മുൻപു തന്നെ കല്ലിടീലിനായാലും ഞങ്ങളാദിവസം രാവിലെ വിശുദ്ധ ബലിയില് പോകുകയും വിശുദ്ധ ബലിയിൽ ആ സംഭവം സമര്പ്പിച്ച് പ്രാര്ത്ഥിക്കുകയും ചെയ്യും വിശുദ്ധ ബലിയര്പ്പണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇടവക വൈദികനെ കൂടി ക്ഷണിക്കുകയും വൈദികന്റെ സാന്നിദ്ധ്യത്തിൽ പ്രാര്ത്ഥനയോടുകൂടി ഭവനത്തിന്റെ കല്ലിടീല് കര്മ്മം നടത്തും പിന്നീട് അതിനുശേഷമുള്ള ഓരോരോ കര്മ്മങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും കൂടുതലായും നമ്മൾ മറ്റുള്ള വാസ്തുവിന്റെ വാസ്തുവിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതല് പ്രാധാന്യം ഇന് ഇത്തരത്തിലുള്ള ദൈവ വചനത്തിനും ദൈവവചനാതിഷ്ടിതമായി ജീവിക്കുന്ന വ്യക്തികള്ക്കും അവരുടെ വാക്കുകള്ക്കുമാണ് ഞങ്ങള് പ്രാധാന്യം കൊടുക്കാറുള്ളത് അതുകൊണ്ടുതന്നെ ഓരോ കര്മ്മത്തിനും അച്ഛനെ വിളിക്കുകയെയും അച്ഛന്റെ വെഞ്ചരിപ്പും ആശിര്വാദവും പ്രാര്ത്ഥനയോടും കൂടിയൊക്കെയാണ് എല്ലാ കര്മ്മങ്ങളും നടത്താറുള്ളത് പിന്നീട് വ്യക്തിപരമായിട്ട് പ്രാര്ത്ഥിക്കണ്ട കാര്യങ്ങളാണെങ്കില് അതു ഞങ്ങള് വ്യക്തിപരമായ പ്രാര്ത്ഥനയിലൂടെയും നടത്താറുണ്ട് പിന്നീട് ഓരോ ക അതാ ഭവനപ്പണിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴവര് ഭവനം പണിയുന്ന ഓരോ ഘട്ടങ്ങളിലും പ്രാര്ത്ഥനയിലൂടെ ആരംഭിക്കാറുണ്ട് പിന്നീട് അടുത്ത ഘട്ടമായ കല്ലിടീല് ചടങ്ങ് കഴിഞ്ഞ് അതിനുശേഷം കട്ടളവെപ്പ് അതിനുശേഷം കട്ടകെട്ട് ഇങ്ങനെയുള്ള ഓരോ ചടങ്ങുകളിലും പ്രാര്ത്ഥനയാണ് ഞങ്ങള് പ്രാര്ത്ഥനക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ വച വചന വായനയ്ക്കും വിശുദ്ധ ബലിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തു കൊണ്ടുതന്നെയാണ് ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതിനു മുമ്പിട്ട് തുടങ്ങാറുള്ളത് പിന്നീട് മുതിര്ന്നവരെ അല്ലെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ഓരോ ചടങ്ങിലും അവരെ എര് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കില് അവരെ കൊണ്ടു ചെയ്യിക്കാറുണ്ട് അല്ലേ തിരി തെളിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനും സിസ്റ്റേസിനും പ്രാധാന്യം കൊടുക്കും അതിനുശേഷം പിന്നീട് നമ്മുടെ ഭവനത്തിലുള്ള മുതിര്ന്നവര്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത് അവർ അവരുടെ സഹകരണവും അവരുടെ അനുഗ്രഹവും കൂടുതലായിട്ടു വാങ്ങാന് നമ്മൾ സഹ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രമിക്കാറും ഉണ്ട് പിന്നീട് നമ്മൾ ഓരോ ചടങ്ങുകള്ക്കും കു കൂടുതലാളുകള് ആവശ്യമായിട്ടുണ്ടെങ്കില് അങ്ങനെയുള്ള നമ്മുടെ അയല്ക്കാരെയും ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും ഒക്കെ വിളിച്ചുകൂട്ടി നമ്മൾ ചടങ്ങുകള് നടത്താറുണ്ട് പിന്നീട് മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളാണെങ്കിൽ നമ്മളുടെ മതപരമായി ബന്ധപ്പെട്ട് അല്ലാതുള്ള ചടങ്ങുകള് എല്ലാവര്ക്കും പൊതുവായിട്ടുള്ള കല്ല്യാണം പോലെയുള്ള മറ്റുള്ള ഫങ്ങ്ഷന്സ് ചടങ്ങുകളുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനു നമ്മൾ എല്ലാ വിശദമായുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഒപ്പം നമ്മൾ അല്പ്പമൊക്കെ എന്ത്വ നല്ല മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമ്സൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും ഏത് ഏതൊരു കര്മ്മവും എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പ്രാര്ത്ഥനക്കും വിശുദ്ധ ബലിക്കും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങള്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മന്നെ എന്നു കരുതി വേണ്ടാത്ത ദുശ്ശീലങ്ങളിലോട്ട് നമ്മൾ പോകാറില്ല അങ്ങനെയുള്ള കാര്യങ്ങള് കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താറുമില്ല വല്ല വചനാധിഷ്ഠിത ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഓരോ മംഗളകര്മ്മങ്ങളും നടത്താറുള്ളത്